എനിക്കൊരു സഹോദരനാണുള്ളത് ഞാനും അവനും തമ്മില് ഒരു സാമ്യതകളുമില്ല ഞങ്ങള് തമ്മില് ഏതുനേരവും വഴക്കാണ് ഓരോ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും വഴക്ക് മീൻസ് ഒരു ഇത് അതുപോലെ ഏതുനേരവും ആ അടികൂടാറുണ്ട് ഞങ്ങള് തമ്മില് ഒരു സാമ്യതയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ വ്യത്യാസങ്ങള് കുറേയുണ്ട് അത് എന്തൊക്കെയാണ് വെച്ചാല് അവന് പൊതുവെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇഷ്ടമല്ല അവന് എപ്പ് ഏതുനേരവും ഫോണ് കിട്ടിയാൽ അവന് ഏതുനേരവും ഫോണിൽ കളിച്ചുകൊണ്ടിങ്ങനെ ഗെയിം കളിക്കുന്നതില് പബ്ജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കളിക്കുന്നതാണ് അവനിഷ്ട്ടം പക്ഷെ എങ്കിൽ എനിക്ക് ഈങ് ഈ പറയുന്ന ഗെയ്മുകളിയോടൊന്നും താൽപര്യമില്ല ഞാൻ ഇങ്ങനെ റീൽസൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കും പിന്നെ അവന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവന് പാലില് ഹോർലിക്സ് ഇട്ടുകഴിക്കാനാണിഷ്ടം പക്ഷേ എങ്കിൽ എനിക്കതു ഇഷ്ടമല്ല എനിക്ക് ബൂസ്റ്റാണ് ഇഷ്ട്ടം പിന്നെ എന്തൊക്കെയാന്ന് വെച്ചാൽ ഞങ്ങള് തമ്മിൽ കുറേ വ്യത്യാശങ്ങളുണ്ട് സാമ്യതകള് ഇല്ല അങ്ങനെയൊന്നും സാമ്യതകള് ഞങ്ങള് ഒട്ടു ഒട്ടും ഞങ്ങൾക്ക് തമ്മില് സാമ്യതകളൊന്നും ഇല്ല വ്യത്യാസങ്ങളാണ് കൂടുതലും ഉള്ളത് പിന്നെ എന്താന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കില് അവന് എന്നും എന്നും കുളിക്കുന്ന ഇഷ്ട്ടമല്ല അവൻ രണ്ടുമൂന്നു ദിവസം കൂടുമ്പോളാണ് കുളിക്കുന്നത് പക്ഷെ ഞാൻ എന്നും കുളിക്കും അങ്ങനേ വ്യത്യാസങ്ങളെ ഉള്ളു ഞങ്ങള് തമ്മില്